സ്കൂള്കളിൽ വിദ്യാഭ്യാസത്തോടൊപ്പം പ്ലംബിങ് തുന്നൽ കോഴിവളർത്തൽ മൃഗസംരക്ഷണം എന്നീ ക്ലാസുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇന്നത്തെക്കാലത്ത് ജോലിസാധ്യത വളരെ കുറവുള്ളതിനാൽ എവിടെ എവിടെച്ചെന്നാലും ഏത് സാഹചര്യത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ക്കൂള്കളിൽ നൽകിയിട്ടുള്ളത്കൊണ്ട് അവർക്ക് എവിടെച്ചെന്നാലും ജീവിക്കാൻ സാധിക്കും